ഹലോ വാട്ടർ അതോറിറ്റിയല്ലേ ഞങ്ങളുടെ കഴിഞ്ഞ മീറ്റർ ചാർജ്ജ് വളരെയധികം കൂടിയിരിക്കുകയാണ് ഞങ്ങൾ അതായത് കഴിഞ്ഞ ഓരോമാസം നൂറ്റിഅൻപത് രൂപയാണ് അടച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ രണ്ടുമാസത്തിലൊരിക്കൽ ഇപ്പോൾ അത് അഞ്ഞൂറും എണ്ണൂറും ആയിരവും ഒക്കെ ആയി മാറുകയാണ് അത് ഞങ്ങളെക്കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് മീറ്റർ റീഡിങ്ങൽൻ്റെ വ്യത്യാസമാണോ ഞങ്ങൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ തോത് വർദ്ധിച്ചതുകൊണ്ടാണോ എന്ത് ആണ് എന്ന് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കിത്തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇനിയൊരു ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് അഞ്ഞൂറും ആയിരവുമായി മാറും എന്നുള്ള ഒരു ആശങ്ക ഞങ്ങൾക്കുണ്ട് അങ്ങനെ വരാതിരിക്കുവാനായിട്ട് വാട്ടർ അതോറിറ്റി അത് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു യാതൊരു കാരണവശാലും ഞങ്ങൾക്ക് ജലം ഇല്ലാതിരിക്കുവാൻ പറ്റത്തില്ല കുടിവെള്ളം ആണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അത് ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല അത് കൊണ്ട് ഓരോ ദിവസവും ഇങ്ങനെ പോയി രൂപ കൂട്ടിക്കൂട്ടി പോയാൽ നമുക്ക് അത് താങ്ങാനായിട്ട് പറ്റത്തില്ല നമ്മുടെ മേഖലയായതിനാലും നമുക്ക് കൂടുതൽ സാമ്പത്തികസ്ഥിതി മോശമായതിനാലും നമ്മൾക്ക് ഇങ്ങനെ ബില്ലുകൾ അടയ്ക്കുവാനായിട്ട് സാധിക്കുന്നില്ല അതിന് അതിനുവേണ്ട നിർദ്ദേശങ്ങൾ തരുവാനും അതിന് വേണ്ടപ്പെട്ടവരെ അറിയിച്ച് അതിൻ്റെ അതിൻ്റെ സാധാരണ നിലയിലേക്ക് ആക്കുവാനുള്ള നടപടികളും സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റിയോട് അഭ്യർത്ഥിക്കുന്നു അത് അല്ലാ എങ്കിൽ മുന്നോട്ടുള്ള പ്രവർത്തനം മുന്നോട്ട് ശരിയാക്കി തന്നില്ലാ എങ്കിൽ മുന്നോട്ട് ഞങ്ങൾ പരാതിപ്പെടുവാൻ പോവുകയാണ് മുന്നോട്ടുള്ള മറ്റ് ഓഫിസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോവാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് അല്ലാ എങ്കിൽ ഞങ്ങൾക്ക് പഴയതുപോലെ രണ്ടുമാസം കൂടുമ്പഴ് നൂറ്റിഅൻപത് രൂപ നൂറ്റിഇരുപത് രൂപ അങ്ങനെയുള്ള തോതിലേക്ക് മാറ്റിത്തരുവാനായിട്ട് മാറ്റിത്തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു നമ്മുടെ നമ്മുടെ ഈ മേഖലയിൽ കുടിവെള്ളം പൈപ്പ് ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ ആശ്രയിച്ചാണ് ഭൂരിഭാഗവും ഇപ്പോൾ ജീവിക്കുന്നത് കിണറുകളിലൊന്നും വെള്ളമില്ല അതുകൊണ്ട് ഒരിക്കലും വെള്ളം വേണ്ടാ എന്ന് എടുക്കുവാനായിട്ട് പറ്റുന്നില്ല ആയതിനാൽ എത്രയും വേഗം ഇതിന് ഉള്ള ഒരു ഒരു നടപടി ഉണ്ടാകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് വാട്ടർ അതോറിറ്റി എൻജിനിയർ ആൻഡ് ആൻഡ് ബിൽ കലക്ടറ്മായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ മീറ്ററിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കിക്കാണുവാനുള്ള ഒരു ഒരു ഒരു ഒരു മനസ്സും മനസ്ഥിതി ഉണ്ടാകണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വാട്ടർ കണക്ഷൻ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ഉണ്ടാകാതിരിക്കണമെന്നും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് വാട്ടർ അതോറിറ്റി ജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ അടുത്ത മാസങ്ങളിലെല്ലാം കുടിവെള്ളം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് മാറാൻ പോകുന്നത് മഴയുടെ മേഖല മഴയ്ക്ക് വളരെ അധികം കുറവുള്ള സ്ഥലമാണ് ഇവിടം മഴ കിട്ടുന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞു വളരെ മഴ കുറവാണ് അതിനാൽ ഞങ്ങൾക്ക് വാട്ടർ അതോറിറ്റീടെ ആവശ്യം അത്യാവശ്യമാണ് എപ്പോഴും ജലം ആവശ്യമുള്ള ഒരു മേഖലയാണ് നമ്മുടെ ഈ മേഖല ആയതിനാൽ ഞങ്ങളുടെ ഈ മേഖലയിലെ ഈ ബില്ല് എത്രയും പെട്ടെന്ന് കുറച്ച് അഞ്ഞൂറും ആയിരത്തിൽനിന്ന് കുറച്ച് നൂറും നൂറ്റി അൻപത് രൂപയിൽ ആക്കിത്തരണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് വാട്റ് അതോറിറ്റി അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു